ഇന്ത്യയില് ഇപ്പോൾ നമുക്ക് മത കേന്ദ്രങ്ങള് അല്ലങ്കിൽ അങ്ങനത്തെ അമ്പലങ്ങള് പള്ളികളൊക്കെ നാം മെയിനായിട്ട് നോക്കാണെന്ന് പറയുമ്പോൾ ഒരു നമുക്കോരോ ജില്ലയിലും അല്ലങ്കിൽ ഓരോ സംസ്ഥാനത്തും ഓരോ അമ്പലങ്ങള് ഇപ്പോൾ കേരളം നോക്കുവാണെങ്കിൽ ശബരിമല ഉണ്ട് ഗുരുവായുരുണ്ട് തിരുവത്ത പള്ളി ഉണ്ട് പിന്നെ കൊടുങ്ങല്ലൂര് പള്ളി ഉണ്ട് ബീമാ പള്ളി ഉണ്ട് അങ്ങനെ പിന്നെ തമിഴ്നാട്ടില് പഴനി മുരുകൻ്റെ അമ്പലം അതുപോലെ മീ മധുര മീനാക്ഷി ഉണ്ട് പിന്നെ അവടെ ഒട്ടനവധി പള്ളികളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ഓരോ സാ സംസ്ഥാനത്തേയും അതിൻറ്റേതായ ഇപ്പോൾ തിരുപ്പതി പിന്നെ നമ്മള് നോക്കണ് പറയുമ്പോൾ ഈ താജ് മഹല് താജ് മഹല് മതപരമായിട്ടല്ലെങ്കിലും എന്തായാലും അത്യാവശ്യം ആൾക്കാര് ഒരു വിസിറ്റ് ചെയ്യുന്ന അല്ലങ്കിൽ സന്ദർശിക്കുന്ന ഒരു കേന്ദ്രം തന്നെയാണ് പിന്നെ ഈ നമ്മുടെ ഗുരുദ്വാരാസ് ഇപ്പം നമ്മുടെ പഞ്ചാബിലൊക്കെ നോക്കണന്ന് പറയുമ്പോൾ ആ ഗുരുദ്വാര സൺ ടെംപിള് പോലത്തെ അങ്ങനത്തെ അമ്പലങ്ങള് പിന്നെ അങ്ങനെ ഒട്ടനവധി ക്ഷേത്രങ്ങളും അമ്പലങ്ങളും പള്ളികളും നമുക്ക് ഇന്ത്യയില് കാണാൻ പറ്റും